മരുന്നുകൾ താങ്ങാവുന്ന വിലയിൽ ലഭിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അത്യാവശ്യം മരുന്നുകൾ നമ്മുടെ കൈക്കൊതുങ്ങാവുന്ന രീതിയിലുള്ള തുകയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് വരുമാനത്തിൻ്റെ എത്ര ശതമാനം മരുന്നുകൾക്കായി നമ്മൾ മാറ്റി വെക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് വരുമാനത്തിൻ്റെ ഒരു കാൽ ഭാഗം നമുക്ക് മരുന്നുകൾക്കായി ചിലവഴിക്കേണ്ടി വരുന്നു സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സൗജന്യമായി മരുന്നുകൾ ലഭിക്കാറുണ്ട് അത് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങേണ്ടതില്ല ഓ പി ടിക്കറ്റിന് മാത്രം നമ്മൾ കാശ് അടച്ചാൽ മതിയാകും എന്നാൽ അവിടെ സർക്കാർ സ്ഥാപനത്തിൽ ഇല്ലാത്ത മരുന്നുകൾ നമുക്ക് പുറമേ നിന്നും മരുന്നു കടകളിൽ നിന്നും വാങ്ങിക്കുവാനായിട്ട് ഡോക്ടർമാർ കുറിപ്പ് തന്നു വിടുന്നതാണ് മരുന്നുകൾ താങ്ങാവുന്ന വിലയിൽ ലഭിക്കാറുണ്ട് നമ്മുടെ ആയുസ്സും ആരോഗ്യവും കാത്ത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ ഈ മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കേണ്ടതിന് നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ നമുക്ക് മരുന്ന് വാങ്ങാൻ മരുന്നിൻ്റെ ഉപയോഗം നമ്മൾക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കുകയുള്ളു നമുക്ക് വരുമാനത്തിൻ്റെ എത്ര ശതമാനം മാറ്റി വയ്ക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിനുവേണ്ടിയിട്ടുള്ള വരുമാനങ്ങളൊന്നുമില്ല എൻ്റെ ഭർത്താവ് ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ് നിശ്ചിത ഒരു നിശ്ചിത തുക മാത്രമേ നമുക്ക് ഇതിൽ നിന്നുമായിട്ട് സേവ് ചെയ്യാൻ സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറയുന്നത് പോലെ ഒന്നും ഇല്ല എല്ലാ കടങ്ങളും കടബാധ്യതകളും ഒക്കെയാണ് ഇതിൽ നിന്നും കിട്ടുന്ന ആ ഒരു തുച്ഛമായ തുകയിൽ നിന്നുമാണ് നമ്മുടെ ജീവിതം നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും ശാരീരികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് നമുക്ക് ഒട്ടനവധി അസുഖങ്ങളുണ്ട് ഇതിനെല്ലാം നമ്മൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ നമുക്ക് കുടുംബത്തിൽ നേരെ ചൊവ്വേ ജീവിച്ച് പോകണമെങ്കിൽ നമ്മുടെ ശരീരം നമുക്ക് കാത്ത് സൂക്ഷിച്ചേ ഒക്കു അസുഖങ്ങളില്ലാതിരുന്നാൽ മാത്രമേ നമുക്കാരോഗ്യം ഉള്ളു ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കുകയുള്ളു ആരോഗ്യം നല്ല ഒരു ജീവിതം വേണമെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യവും വേണം ആരോഗ്യം ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല നമ്മൾ മരുന്നുകളെ ആശ്രയിക്കേണ്ടി വരും അമിതമായ മരുന്നുകളുടെ ഉപയോഗം നമ്മുടെ ശരീരത്ത് ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തും നമുക്കത് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും ഒരുപാട് അസുഖങ്ങളെ ഇല്ലാത്ത അസുഖങ്ങളെ പോലും മരുന്നുകളുടെ അമിതമായ ഉപയോഗം നമ്മളിൽ വിളിച്ചു വരുത്തും അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ആരോഗ്യവതികളായും ആരോഗ്യവാന്മാരും ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് അസുഖങ്ങൾ വരാതെ നമ്മൾ സൂക്ഷിക്കണം അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ സൂക്ഷിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കയ്യിലെ കാശും ചിലവാകില്ല മരുന്നിൻ്റെ ഉപയോഗം നമുക്ക് നിയന്ത്രിക്കാനായിട്ടും സാധിക്കും എന്നാൽ ചിലത് വീര്യം കൂടിയ മരുന്നുകളാണ് ഈ വീര്യം കൂടിയ മരുന്നുകൾ നമ്മൾ കഴിച്ചാൽ തന്നെ നമുക്ക് ശാരീരികമായി നമുക്ക് ശരീരത്ത് ഒട്ടനവധി വിഷയങ്ങൾ ഒട്ടനവധി അസുഖങ്ങൾ പിന്നീട് നമുക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഒന്നിനും മേലെ ഒന്നായിട്ട് അസുഖങ്ങളുടെ തീരാബാധ തന്നെ നമ്മുടെ പിന്തുടരുന്നതായിരിക്കും കുഞ്ഞു കുട്ടികൾക്കെല്ലാം മരുന്നുകൾ കൊടുക്കുമ്പോൾ അതിൻ്റേതായ രീതിയിലും അളവിലും എല്ലാം കുറച്ചു കൊടുക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക മരുന്നുകൾ നമ്മൾ സർക്കാറിൻ്റെ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ നമ്മൾ ഹോമിയോകളിലോ അല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റ് ആശുപത്രിയിലൊക്കെ പോയിക്കഴിഞ്ഞാൽ നമുക്കവിടെന്ന് ഫീസില്ലാതെ സൗജന്യമായി മരുന്ന് കിട്ടും നമ്മൾ ഓ പി ടിക്കറ്റിൻ്റെ കാശ് മാത്രം കൊടുത്താൽ മതിയാകും അവിടെ ഇല്ലാത്ത മരുന്നുകൾ നമുക്ക് പുറമേ മരുന്ന് കടകളിൽ നിന്നും വാങ്ങിക്കുവാനായിട്ട് അവിടുത്തെ ഡോക്ടർമാർ എഴുതി തരുന്നതാണ് ആ ബില്ല് കൊണ്ട് നമ്മൾ നമുക്ക് താങ്ങാവുന്ന ഒരു കടയിൽ കയറി അല്ലെങ്കിൽ ഇത്ര ശതമാനം കുറച്ചു തരും എന്ന് എന്ന കടകൾ കയറി നമ്മൾ ആ മരുന്നും വാങ്ങിച്ചാൽ നമുക്ക് ഒരു നിശ്ചിത തുകയിൽ മരുന്നുകളെല്ലാം ലഭ്യമാണ് ഡോസ് കുറഞ്ഞ മരുന്നുകൾ വാങ്ങിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും മരുന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖങ്ങൾ വരാതെ നാം സൂക്ഷിക്കുന്നതല്ലേ എന്തിനാണ് നമ്മൾ ഇത്രയും അനാരോഗ്യരായിട്ട് ഇരിക്കുന്നത് നമ്മുടെ ജീവിതം നമ്മൾ ജീവിച്ചു തീർക്കേണ്ടതാണ് അതെത്ര നാൾ നീണ്ട് നിന്നുവെന്നും നമുക്കറിയില്ല ഉള്ള ജീവിതം ഉള്ള ആയുസ്സ് നമ്മൾ ഒരസുഖങ്ങളൊന്നും വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത് അതുപോലെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും അസുഖങ്ങളൊന്നും വരാതെ സൂക്ഷിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക മരുന്നുകൾ മരുന്നുകളുടെ ഉപയോഗം നമുക്ക് അമിത ഉപയോഗവും നമ്മളിൽ വളരേയേറെ അസുഖങ്ങൾക്ക് കാരണമാകും അത് കാരണം നമ്മൾ അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കുക മരുന്നുകളുടെ ഉപയോഗം ഏറ്റവും കുറയ്ക്കുക എത്രത്തോളം മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കുവാൻ പറ്റുമോ അത്രത്തോളം മരുന്നുകളുടെ ഉപയോഗങ്ങളെല്ലാം കുറയ്ക്കുക പൂർണ്ണമായ ആരോഗ്യവതികളായിരിക്കുക കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുക അസുഖങ്ങൾ വരാതെ നോക്കുക മലിന മലിന ജലവും മലിന ഭക്ഷണ സാധനങ്ങളും എല്ലാം ഉപേക്ഷിക്കുക ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുക വെള്ളം ചൂടാക്കി കുടിക്കുക തോടുകളിലും പുഴകളിലും ഒക്കെയുള്ള കുളികൾ അവസാനിപ്പിക്കുക ചൂട് വെള്ളം കൊള്ളിക്കുക ആഴ്ച എട്ട് ലിറ്റർ വെള്ളമെങ്കിലും ഓരോ ദിവസവും കുടിക്കുക എന്നുള്ള അങ്ങനെയൊക്കെയുള്ള നല്ല ശീലങ്ങളൊക്കെ നമ്മൾ നിറവേറ്റി അസുഖങ്ങളെ കഴിവതും വരാതെ കാത്തുസൂക്ഷിക്കുവാൻ നമ്മൾ ശ്രമിക്കുക